ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി ശില്പശാലകളിൽ പങ്കെടുത്തിട്ടൊന്നും ഇല്ല ഞാൻ ഇത് പഠിക്കണം എന്ന് ആഗ്രഹം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടില്ല പഠിക്കാൻ പഠിച്ചില്ല ഫോട്ടോഗ്രാഫി അതിനെക്കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ വിവരിക്കാൻ ഫോട്ടോഗ്രാഫി ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല സാങ്കേതിക സംങ്കേതങ്ങൾ ളും പഠിച്ചിട്ടില്ല സംങ്കേത ഫോട്ടോഗ്രാഫി അല്ലാതെ നമുക്കിപ്പൊ ഫോട്ടോ പഠിക്കാതെയുള്ള ഫോട്ടോ എടുക്കാനൊക്കെ നമുക്കറിയത്തുള്ളൂ ഫോട്ടോഗ്രാഫി നെക്കുറിച്ച് പഠിക്കാൻ അതിനുള്ള ഒരു ഇത് ഇല്ല പോയില്ല അതായത് പിന്നെ നമ്മൾ പഠിത്തം കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോവാതെ വേറെ ഡിഗ്രിക്കോ ഒക്കെ പോയി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ഇത് ഞാൻ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല നല്ല ഫോട്ടോകളൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഫോട്ടോഗ്രാഫി പങ്കെടുത്തിട്ടില്ല ഇത് കാണും കണ്ടിട്ട് മാത്രം ഉള്ളൂ ഇതിൻ്റെ പഠിച്ചിട്ടില്ല ഫോട്ടോഗ്രാഫി എവിടെയെങ്കിലും നമ്മൾ ഫോട്ടോ നല്ല ഫോട്ടോ ഒക്കെ കണ്ടാൽ ആസ്വദിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതല്ലാതെ ഉണ്ട് അതുകൊണ്ട് ഫോട്ടോ ഗ്രാഫീടെ കൂടുതൽ അതിനെക്കുറിച്ച് പഠനം നടത്തുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല ഫോട്ടോഗ്രാഫി ഫോട്ടോ എടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഫോണൊക്കെ വന്ന് കഴിയുമ്പൊത്തേനും ഫോട്ടോയുടെ ഒരു സാധ്യതകൾ ഉണ്ടല്ലോ ഇപ്പം നേരത്തെ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രം അല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളായിരുന്നു ഇപ്പം അതല്ലല്ലോ ഇപ്പോൾ ഈ ഫോണുകളൊക്കെ വന്ന് കഴിഞ്ഞപ്പത്തേനും നമുക്ക് എങ്ങനെയാണെങ്കിലും ഫോട്ടോ എടുക്കുകയോ ഇത് നമുക്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഫോണിൻ്റെയൊക്കെ സാധ്യത വെച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽപ്പോലും നന്നായിട്ട് ഈ ഫോണിനകത്ത് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും സെൽഫി എടുക്കയൊക്കെ ചെയ്യാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോളത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഫോണൊക്കെ വന്നത് കാരണം നമുക്ക് ഫോട്ടോഗ്രാഫി പഠിച്ചില്ലെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അത് നന്നായിട്ട് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇത് നമ്മൾ പഠിക്കണം എന്നില്ല പഠിച്ചായിരുന്നെങ്കിൽ കൂടുതലും നമുക്ക് ഈയൊരു മേഖലയിൽ നിന്നിട്ട് നമുക്ക് നല്ലകണക്ക് ശോഭിക്കാൻ പറ്റുമായിരുന്നു നമ്മളത് പഠിച്ചില്ല ശരിക്കും ഫോട്ടോഗ്രാഫിയൊക്കെ പഠിക്കുന്നത് നല്ലതായിരുന്നു പഠിച്ച് ക്യാമറയൊക്കെ മേടിച്ച് നല്ല ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നെങ്കിൽ നല്ല നല്ല ഫോട്ടോ എടുക്കാനും നല്ല രീതിയിൽ നല്ല പ്രകൃതിയിൽ നല്ല നല്ല ഫോട്ടോകളൊക്കെ എടുത്ത് നല്ല ഇതായിട്ട് വെക്കാനൊക്കെ സാധിക്കുമായിരുന്നു പക്ഷെ ഫോട്ടോഗ്രാഫി പഠിച്ചില്ല പക്ഷെ ഇപ്പത്തെ ഒരു ഈ ഫോണൊക്കെ വന്നപ്പോൾ നമുക്ക് പഠിച്ചില്ലെങ്കിൽപ്പോലും നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഫോട്ടോ ഫോട്ടോഗ്രാഫി ഈ ഇത് പഠിക്കുകയായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള ഫോട്ടോകളൊക്കെ നമുക്ക് വേണെ എടുക്കാമായിരുന്നു പക്ഷെ പഠിച്ചില്ല അത് ഈ ഈ ഇപ്പോളത്തെ ഒരു ഈ ഫോണിനകത്ത് നമുക്കിത് പഠിക്കാതെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല എളുപ്പമായുള്ള രീതിയിലാണ് ഫോണുകളൊക്കെ സംവിധാനം ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമുക്കിപ്പം ഫോട്ടോ എടുക്കാൻ വേറെ പഠിക്കാനുള്ള ഒരു ഇതില്ല പഠിക്കേണ്ട കാര്യം ഇല്ലാതെതന്നെ നമുക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ് സാധിക്കും എന്ന് വെച്ചാൽ ഇപ്പോളത്തെ ഈ ഫോണിനകത്തൊക്കെ നമുക്കിപ്പം പഠിക്കേണ്ട കാര്യമില്ല അതുതന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഫോട്ടോ എടുക്കാവുന്ന രീതിയിലൊക്കെ നല്ല ഇതിലോട് കൂടിയാണല്ലോ ഇപ്പോഴത്തെ ഫോണുകളൊക്കെ വരുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ നമ്മൾ ചുമ്മാ എടുത്താൽ തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള ഫോട്ടോകളും ഒക്കെയാണല്ലോ വരുന്നത് അതുകൊണ്ട് നമ്മളിത് പഠിച്ചില്ലെങ്കിൽ പോലും ഇപ്പോളത്തെ ഫോണിനകത്ത് ഇന്ന് നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും ഫോട്ടോ നമ്മളുദ്ദേശിക്കുന്നതിനെക്കാളും നല്ല ക്ലാരിറ്റിയോടും നല്ല ഇതോട് കൂടി നല്ല ഫോട്ടോ എടുത്ത് നമുക്ക് പഠിക്കായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുംകൂടെ ഒക്കെ കൂടുതലും നല്ല നന്നായിട്ട് ഫോട്ടോ എടുക്കാമായിരുന്നു പക്ഷെ നമ്മളിത് പഠിക്കാത്തത് കാരണം ഇപ്പോൾ പക്ഷെ ഈ ഫോണൊക്കെ വന്ന കാരണം ഇപ്പം നല്ലതായിട്ട് നന്നായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും ഈ ഇപ്പത്തെ ഈ ഫോണൊക്കെ നമുക്ക് നോക്കേണ്ട കാര്യം പോലും ഇല്ല അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ഫോട്ടോയെക്കുറിച്ച് നമ്മൾ പഠിക്ക പഠിക്കേണ്ട കാര്യമില്ല ഫോട്ടോയെക്കുറിച്ച് പഠിക്കേണ്ട കാര്യം പോലും ഇല്ലാതെ പോലും നമുക്ക് ഈ ഫോണ് ഉപയോഗിച്ച് നന്നായി നമുക്ക് ഫോട്ടോ എടുക്കാം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ഇപ്പോഴത്തെ ഫോണൊക്കെ ആ രീതിയിലാണല്ലോ വരുന്നത് നമ്മളതിനെക്കുറിച്ച് ഒന്നും നമുക്ക് വിഷമിക്കേണ്ട കാര്യം വരിയേല നമുക്ക് പഠിക്കേണ്ട കാര്യം വരിയേല ഇത് പഠിച്ചില്ലെങ്കിൽ പോലും ഏറ്റവും നല്ല രീതിയിലുള്ള ഫോട്ടോ ഗ്രാഫി എടുക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഫോട്ടോ ഇത് ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല ഞങ്ങൾ നമ്മൾ പഠിക്കുന്ന പഠിച്ചിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ഫോണിനകത്ത് ഫോട്ടോയും വീഡിയോയും എല്ലാം നമുക്ക് നന്നായിട്ട് എടുക്കാനുള്ള പഠിച്ചില്ലെങ്കിൽ പോലും എടുക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇപ്പഴത്തെ ഒരു ഇത് വെച്ച് നമ്മളീ ഫോണ് കൊണ്ട് നന്നായിട്ട് എടുക്കുന്നുണ്ട് നല്ല ഫോട്ടോ പഠിച്ചില്ലേലും എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പഠിച്ചിട്ടില്ല എങ്കിലും നല്ല ഇതായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നുണ്ട്